ഹലോ

അഹ് അതെ എന്തായിരുന്നു അഹ്

അഹ് എടുക്കാം എത്ര കുട്ടികൾക്കാണ് ഇരുന്നൂറ് ഏജ് അഹ് എത്ര കുട്ടികളാണ് ഏജ്

ഞങ്ങൾക്ക്

ചുരിദാറാണോ ചുരിദാറ് മ്മ് മ്മ് ഞങ്ങൾ ചെറിയ കുട്ടികളുടേത് ട്രൗസർ ഷർട്ടും അഹ് അതൊരു മുന്നൂറ്റി അൻപത് വരും അഹ് അഹ് അഹ് നാനൂറ് ആണ് മുന്നൂറ്റി അൻപത് നിങ്ങൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് മുന്നൂറ്റി അൻപത് ചുരിദാറിന് നാനൂറ് ഓഹ് ഓഹ് അഹ് കുറച്ച് അഡ്ജസ്റ്റ് ആക്കാം നമ്മൾ നാനൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് ചുരിദാറിന് നാനൂറ്റി അൻപതിനാണ് അഹ് നിങ്ങൾക്ക് നാനൂറിന് തന്നെ

ഒരാഴ്ച അഹ് അഹ് അഹ് ഓക്കേ ഞങ്ങളെടുക്കും എന്നാണ് പരിപാടി അഹ് അഹ് അഹ് ഒരാഴ്ച കൊണ്ട് തരാം അഹ് അളവും കാര്യങ്ങളും ഒക്കെ തരണം ഞങ്ങൾ അവിടെ വരാം അങ്ങോട്ട് വരാം അഹ് ഞങ്ങൾ അങ്ങോട്ട് വരാം അഹ്